ആദ്യമൊന്നും എനിക്ക് ഫോട്ടോസെടുക്കാനോ അല്ലെങ്കിൽ അത് പ്രസൻ്റെയ്യാനോ അതൊന്നും അറിയില്ലായിരുന്നു അതീ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ അയ്യോ ഇത് പോലുള്ളൊരു ഫോട്ടോസെടുക്കണമായിരുന്നു ഇത് പോലെയുള്ള ക്യാമറ വേണമായിരുന്നു എന്നൊക്കെ അങ്ങനെയാണ് ഞാൻ ക്യാമറ വാങ്ങിയതും ഫോട്ടോയെടുക്കാൻ തുടങ്ങിയതും അപ്പോഴൊന്നും എൻ്റെ ഫോട്ടോസ് കാണാൻ ഒരു ക്ലാരിറ്റിയും ഒന്നുണ്ടായിരുന്നില്ല എഡിറ്റെയ്യാനറിയില്ല ഒന്നും ചെയ്യാനാറിയില്ല അതിലെ ഫിലിമെന്താണെന്നോ ക്യാമറ എങ്ങനെയാണ് ഫോട്ടോയെടുക്കുന്നത് അതൊന്നും അറിയില്ല പിന്നീട് പ്രാക്റ്റീസ് ചെയ്ത് ചെയ്ത് വന്നിട്ടാണ് ആ ഒരു രീതിയിൽ ഞാൻ ഫോട്ടോയെടുക്കാൻ തുടങ്ങിയത് ഇപ്പോൾ നല്ല മാറ്റമാണ് ഉണ്ടാവുന്നത് പിന്നെ ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എഡിറ്റെയ്യാനും അതുപോലെ എഡിറ്റെയ്യാൻ വേണ്ടി മറ്റുള്ളവരുടെ അടുത്ത് പോയി ചോദിച്ചു പഠിച്ച് പിന്നെ ഓരോന്ന് റിസർച്ചെയ്ത് എല്ലാം ചെയ്തിട്ടാണ് ഞാനിത് പഠിച്ചത് ആതൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതൊക്കെ ഞാൻ പ്രാക്റ്റീസെയ്ത് പിന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് തന്ന് പിന്നെ ഓരോന്ന് സർച്ച് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ആ രീതിയില് ഫോട്ടോയെടുക്കാനും അത് പിന്നീടെല്ലാവർക്കും ഇഷ്ടാമാവാനും ഒക്കെ തുടങ്ങിയത്